ഇപ്പോൾ ക്യാൻസറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് കാരണം എന്താന്നു വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ബ്ലഡ് ക്യാൻസർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞാല് നമ്മൾ എന്തായാലും മരണപ്പെടും എന്നറിയാം പക്ഷേ എന്നാലും നമ്മൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ കീമോയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട് ക്യാൻസറിന് നമ്മളുടെ നാട്ടിൽ പല രീതിയിലുള്ള ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെയുണ്ട് നമ്മള് കുടുതലായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് തിരുവനന്തപുരത്തുണ്ട് ഒരു ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെയുണ്ട് ക്യാൻസറിന് വേണ്ടി മാത്രമുള്ളത് പിന്നെ കണ്ണൂരുണ്ട് ഒരു ഹോസ്പിറ്റല് അവിടെയാണ് കുടുതലായിട്ടും കൊണ്ടുപോവുക പിന്നെ നമ്മളുടെ കോഴിക്കോട് തന്നെ അതായത് നമ്മളുടെ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെയും നമ്മള് ക്യാൻസറിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടോവാറുണ്ട് ക്യാൻസറിൻ്റെ പല പല തരത്തിലുള്ള ക്യാൻസറും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ തൊണ്ടയില് ആമാശയത്തില് അങ്ങനെ പല രീതിയിലുള്ള ക്യാൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിനൊക്കെ മൈനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കീമോ തൊറാപ്പിന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് കുടുതലായിട്ടും ചെയ്യുന്നത് നമ്മളൊരു ഫസ്റ്റ് സ്റ്റേജോക്കെയാണെങ്കിൽ നമുക്ക് കുടുതലായിട്ടും അതിനെ ചെറുത്ത് നിൽക്കാനൊക്കെ വേണ്ടി സാധിക്കും അവസാനത്തെ സ്റ്റേജോക്കെ ആകുമ്പത്തേയ്ക്കുമാണ് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെന്ന് പറഞ്ഞാൽ ഹൃദ്രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ പലരീതിയിലുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദ്രോഗത്തിൽ നമുക്ക് ഇപ്പോൾ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതായത് നമ്മുടെ ബേ ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്കാകുന്നതിൻ്റെയാണ് ഈ ഹൃദൃരോഗങ്ങലും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഡയാലിസിസും കാര്യങ്ങളൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജുണ്ട് അല്ലെങ്കിൽ മിംമ്സില് അല്ലെങ്കില് ബേബി മെമ്മോറിയൽ അങ്ങനെ പല രീതിയിലുള്ള ഹോസ്പിറ്റലുകളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്